ഒരു രാജ്യത്ത് ലഭ്യമായ ആശുപത്രികളെ കുറിച്ചും മെഡിക്കൽ സേവനങ്ങളെ കുറിച്ചും എൻ്റെ അഭിപ്രായം വളരെ അധികം നല്ലതാണ് അവ അവ പ്രശംസ അർഹിക്കുന്നത് തന്നെയാണ് ഇവിടങ്ങളിലെ ചിലവ് പക്ഷെ താങ്ങാനാവുന്നതിലും കൂടുതലാണ് മുമ്പത്തേക്കാൾ മികച്ച സൗകര്യമാണുള്ളത് പക്ഷേ അവിടെ ഇവിടങ്ങളിലെ ചിലവ് താങ്ങാനാവുന്നതിലും വളരെ കൂടുതലാണ് കോവിഡ് മഹാമാരിയുമായി ഞങ്ങൾ ബന്ധപ്പെട്ട അനുഭവം എന്നു വച്ചു കഴിഞ്ഞാൽ വളരെ അധികം ഭീകരമായിരുന്നു ഓരോ മനുഷ്യനും അവനവൻ്റെ വീട്ടിലുകളിലേക്ക് ഒറ്റപ്പെട്ട അവസ്ഥ തന്നെയായിരുന്നു കോവിഡിനെ സംബന്ധിച്ചു ഉണ്ടായിരുന്നത് നമ്മൾ ഞങ്ങളുടെ പ്രദേശത്ത് മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ എടുപ്പിക്കുന്നതിന് എന്നെ നമ്മുടെ സർക്കാർ വളരെ അധികം നല്ല മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും കുറച്ചും കൂടി കാര്യക്ഷമമായ രീതിയിൽ വീട് വീടാന്തരം കയറി ആശാവർക്കർമാർ കയറി അവരുടെ ആരോഗ്യ സ്ഥിതിയെ കുറിച്ച് അന്വേഷിക്കേണ്ടതും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഗുളികകളായാലും അയേൺ ഗുളികകളായാലും പിന്നെ മറ്റുള്ള ഗുളികകളൊക്കെ ആയാലും അവർക്ക് നൽകണമെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം തന്നെയാണ് അപ്പം മികച്ച ആരോഗ്യ പരിരക്ഷ നമുക്ക് ഉണ്ടാകും